ഹലോ ഹലോ ഇത് മലബാർ റസ്റ്റോറൻറ്റല്ലേ ഞാൻ അര മണിക്കൂർ മുന്നേ അവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു വെജ് കുറുമയും ഓർഡറെയ്തിരുന്നു പക്ഷേ എനിക്ക് അവര് ഡെലിവറ് ചെയ്തത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാൻ ഓൾറെഡി ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റൊക്കെ അടച്ചതാണ് അപ്പോൾ നിങ്ങള്ടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒന്നെങ്കിലും നിങ്ങളെനിക്ക് പെയ്മെൻറ്റ് തിരിച്ചു തരണം അല്ലെങ്കില് ഒരരമണിക്കൂറിനുള്ളില് എനിക്ക് ഓർഡറ് എത്തിച്ചു തരാനും ശ്രമിക്കണം നിങ്ങള്